ആ കേട്ടോ നമുക്ക് അവിടെ വാടക എങ്ങനെയാണ് ഡി പൈസയായിട്ട് വേണോ അതോ ഗൂഗിൾ പേ വഴി അയച്ചു തന്നാൽ മതിയോ അയ്യോ ക്യാഷ് ആയിട്ട് വേണം എന്ന് പറഞ്ഞാൽ കൈയിൽ ക്യാഷ് എടുക്കാൻ വിട്ട് പോയി നമ്മൾ വരുമ്പോൾ എ ടി എം മിൽ നിർത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ അത് മറന്ന് പോയി എടിഎം നിർത്തി പൈസ എടുക്കാൻ പറയാൻ ഞാൻ ഗൂഗിൾ പേയിൽ അയച്ചു തന്നാൽ പോരെ നിങ്ങളുടെ കൈയിൽ ഗൂഗിൾ പേ ഇല്ലേ ആ എന്നാൽ ഞാൻ ഗൂഗിൾ പേയിൽ അയച്ചു തരാം നിങ്ങടെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറഞ്ഞു തന്നാൽ മതി ആ ആ ഞാൻ ഈ നമ്പറിൽ അയച്ചു വിടാം ആ കേറി നോക്കിയെ ആ ശരി ശരി ശരി